ഞങ്ങളുടെ പ്രദേശത്ത് വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികളെന്നു പറഞ്ഞാൽ കുറച്ചു പേർ അതായത് കൂടുതലും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരു പൈസ കഴിഞ്ഞാൽ പിന്നെ അവരെ കല്യാണം കഴിപ്പിച്ചു വിടണം പഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂടുതൽ ഉയർന്നതിൽ പഠിക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് നാണക്കേട് അല്ലെങ്കിൽ മോശമാണെന്നൊക്കെ ആ പറയുന്ന കുറച്ചു പേരെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം എൻ്റെ അറിവിൽ അങ്ങനെ കുറച്ചു പേരെങ്കിലും ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് പെൺകുട്ടികളാണ് അപ്പം പെൺകുട്ടിയാണ് അപ്പം അതു കൊണ്ടു തന്നെ അവരെ കല്യാണം കഴിപ്പിച്ചാണ് വിടേണ്ടത് ഒരു വയസ്സൊക്കെ ആയെങ്കിൽ എനിക്കു തോന്നുന്നു ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പഠിക്കാൻ വിടുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിച്ച് അവർക്കൊരു കുടുംബത്തു പോയി അവരെ പരിചരിക്കേണ്ടതാണ് അല്ലാതെ അവർ പഠിച്ചു പഠിച്ച് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അവരെ നോക്കുക അല്ലെങ്കിൽ അവർ ഇരിക്കേണ്ടത് ഭർത്താവിൻ്റെ കീഴിലാണ് അവർ പഠിച്ചു സമ്പാദിച്ചിട്ടു വേണ്ട ജീവിക്കാൻ എന്നുള്ളൊരു നിലപാടെടുക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് ചിലർ പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം പക്ഷെ എന്നാലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും പോസിബിളല്ല പോസിബിളല്ലയെന്നു മാത്രമല്ല അതവർ മാറ്റുകയും ചെയ്യും ഇനിയിപ്പം നീ പഠിക്കുകയൊന്നും വേണ്ട ഇവിടെ നിന്നാൽ മതി നീ പഠിച്ചു സമ്പാദിച്ചിട്ടു വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ എന്നുള്ള നിലപാടെടുക്കുന്ന ഭർത്താവും വീട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം നേരിടുന്നതിന് കുറച്ചു വിദ്യാർത്ഥികളെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ട്

അവരെ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ ശ്രമ ഗൾഫിലേക്ക് ജോലിക്കു പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ആ പഠിച്ചതൊക്കെ മതി ഇനി പഠിച്ചാലാ പഠിപ്പിനുള്ള ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല ആ പുറത്തു പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ അത്യാവശ്യം വരുമാനമുണ്ടാകും എന്നു പറഞ്ഞിട്ട് ആൺകുട്ടികളെയും ഉണ്ട് കുറച്ചു പേരെങ്കിലുമുണ്ട് അവരെ ജോലിക്ക് വിട ഗൾഫിലേക്കു പറഞ്ഞയക്കുക അതായത് ഇവിടെ നിന്നു പഠിപ്പു നിർത്തിയിട്ട് ഒരു പ്ലസ് ടു വരെയൊക്കെ കുഴപ്പമില്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു പ്ലസ് ടു വരെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിർത്തുന്നൊരു പരിപാടിയായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്കൊന്നും വിടാതെ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു വിടാം ആൺകുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് ജോലിക്കു വിടുക ഗൾഫിലേക്ക് വിറ്റുക അങ്ങനെ കുറച്ച് പേർ എൻ്റെ അറിവിലും കുറച്ചു പേർ അതേ പോലെ ഒരു പതിനെട്ട് പതിനാറ് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ വിടാത്ത ചില വീട്ടുകാരുണ്ട്